ഞങ്ങൾ പുതിയ ഒരു അപ്പാർട്ട്മെൻ്റിലേക്ക് താമസം മാറ്റുകയാണ് അവിടെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കിട്ടിയാൽ കൊള്ളാമെന്ന് വളരെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവിടുത്തെ സേവന ധാതാക്കളായി ധാതാക്കളുമായി ബന്ധപ്പെടുന്നു നിങ്ങളുടെ പുതിയ ഞങ്ങൾ അവിടെ ചെന്നു കഴിയുമ്പോഴത്തേക്കും ഒരു പുതിയ ബ്രോഡ്ബാൻഡ് കണക്ഷൻ സജ്ജീകലിനെ കുറിച്ചു അന്വേഷിക്കുകയാണ് കൂടി വന്നാൽ അതിന് പിന്നെ ഒന്നോ രണ്ടോ ജിബി മാത്രം മതിയാവും മൂന്നോ നാലോ കുടുംബക്കാർ കൂടി ആ കണക്ഷൻ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് എത്രയും വേഗം ചെയ്ത് തരുമെന്ന് വിശ്വസിക്കുന്നു മതിയോ